അടുത്തിടെ മീൻ മുറിക്കുന്ന സമയത്ത് എൻ്റെ കൈ ഒന്നു മുറിഞ്ഞു മീൻ കൈയിൽ വച്ചിട്ട് കത്തി കൊണ്ട് അമർത്തി മുള്ളു മുറിയാതായപ്പോൾ ഇത്തിരി ആഴത്തിൽ ഒന്ന് അമർത്തി വലിയ മൂർച്ചയുള്ള കത്തിയൊന്നും ആയിരുന്നില്ല അതുകൊണ്ടാണ് അത്രയും അമർത്തിയത് അമർത്തിയപ്പോൾ നേരെ അത് മീൻ്റെ മുള്ളും കട്ടായി ചൂണ്ടുവിരലിൻ്റെ താഴത്തെ ഭാഗത്ത് ഇത്തിരി ആഴത്തിലുള്ള മുറിയായി മുറിയിൽ നിന്ന് നല്ല ബ്ലഡ് വന്നു മുറി കെട്ടി ടൈറ്റായി കെട്ടി കഴിഞ്ഞാൽ ബ്ലഡ് നിൽക്കും മുറി അ ഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ബ്ലഡ് വരും അങ്ങനെ ഉള്ളൊരു അവസ്ഥ ഒന്ന് രണ്ട് മണിക്കൂർ ഇതിങ്ങനെ കണ്ടപ്പോൾ പിന്നെ ഡോക്ടറെ കാണിച്ച് മൂന്ന് സ്റ്റിച്ച് ഇടേണ്ടി വന്നു അപ്പോൾ രണ്ട് മീനല്ലേ അത് പെട്ടെന്ന് കഴിയുമല്ലോ എന്ന് വച്ചിട്ടാണ് കൈയിൽ വച്ച് മുറിച്ചത് കട്ടിങ് ബോർഡ് എടുക്കാനുള്ള ഒരു മടി കൂടി ഉണ്ടെന്ന് പറയാം അപ്പോൾ രണ്ട് മീനാണെങ്കിലും പത്ത് മീനാണെങ്കിലും കട്ടിങ് ബോർഡിൽ വച്ചിട്ട് തന്നെ കട്ട് ചെയ്യുക എളുപ്പ പണി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ലൊരു പണി കിട്ടുമെന്ന് മനസിലായി